കോഴികൾക്ക് സാധാരണ ബാധിക്കുന്ന രോഗം എന്നു പറയുന്നത് ഇന്നെ ഞങ്ങൾ ഈ തൂക്കം പോലെവരും കോഴി ഇങ്ങനെ തൂങ്ങി നിൽക്കും അങ്ങനെ തൂങ്ങി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഈ മ മ മഞ്ഞളും അതു ഇതുമൊക്കെ കലക്കി കുടിക്കാൻ കൊടുക്കും അങ്ങനെ കുടിക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് കോഴികൾക്ക് കുറവില്ലെങ്കിൽ പിന്നെ നമ്മൾ മൃഗാശുപത്രി കൊണ്ട് ഇഞ്ചക്ഷൻ അവരെ പിടിച്ചു വന്ന് ഇഞ്ചക്ഷൻ എടുപ്പിക്കും

അങ്ങനെ ഒരൂ ഇഞ്ചക്ഷൻ്റെ മാർഗ്ഗമല്ലാതെ പിന്നെ ഇവിടെ സാധാരണ നമ്മൾ കൊടുക്കുന്നത് തീറ്റി കൊടുക്കുമ്പം തീറ്റിക്കകത്ത് ചെറിയ പൊടി ഹോസ്പിറ്റലിൽ നിന്നു തരും വെറ്റിനറി ഹോസ്പിറ്റലിന്ന് ആ പൊടി നമ്മള് കുഴച്ച് ഇട്ട് കൊടുക്കും അത് ചെലത് രക്ഷപ്പെടും ചെലത് രക്ഷപ്പെടത്തില്ല കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ അത് രക്ഷപ്പെടത്തില്ല അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെ ഉള്ളൂ കോഴിക്ക് അല്ലാതെ വലിയ ഇന്നന്നങ്ങനെയൊക്കെയുള്ള ചികിത്സകളില്ല ആ നമ്മൾ സാധാരണ ഇവിടെ കോഴിക്ക് വരുന്ന എങ്ങനെയാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ പനി പോലെ വന്നിട്ട് അത് അങ്ങ് ഇങ്ങനെ തൂങ്ങി അവിടെ ഇരിക്കും ഇങ്ങനെ തൂങ്ങിയിരിക്കും തൂങ്ങിയിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞളോ അങ്ങനെയൊക്കെ കലക്കി കൊടുത്ത് ശകലം ഒക്കെ ഒരു ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയിൽപോയി മരുന്ന് മേടിക്കും അവിടുന്ന് അവരൊരു പൊടി തരും ആ പൊടി ഇതിനകത്ത് കലക്കിയാൽ ഇട്ട് ചോറിനകത്ത് ഇളക്കി ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടും കുറവാകുന്നില്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുപ്പിക്കും ഇൻജക്ഷൻ എടുപ്പിച്ചാൽ കോഴിക്ക് വന്ന് മൂർച്ചന്ന്യ രോഗമാണെങ്കിൽ അതു നിൽക്കത്തില്ല ചത്തുപോകും അല്ലാത്ത കോഴി രക്ഷപ്പെടും എത്തിയാൽ കുറച്ച് രക്ഷപ്പെടും സാധാരണ കോഴിക്ക് ഒരു പനി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ വസന്ത വരുമ്പം മുഴുവൻ ചത്തുപോകുക അതിനും ഭേദം ചത്തകോഴിയെ മാറ്റിയിട്ട് വേറെ കുഞ്ഞുങ്ങളെ ഇറക്കും ഇറങ്ങി ചെയ്യുക അങ്ങനാ സാധാരണ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഇത്രയും മതിയല്ലോ